ഹലോ എ എ ട്രാവൽ ഏജൻസി അല്ലേ ആ അതെ ഞാൻ അവിടെ നിന്നൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ നെയിം പാർവ്വണ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അതു പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു ഞാൻ ഒരു ലോങ്ങ് പോകുവാൻ വേണ്ടിയായിരുന്നു ബുക്ക് ചെയ്തത് ആ അതെ വൺ വീക്കിനു വേണ്ടിയായിരുന്നു ആ അതെ കുറേ പ്രോബ്ലംസ് ഉണ്ട് എന്താണെന്നു ചോദിച്ചാൽ ഈ സീറ്റൊക്കെയാണെങ്കിൽ ഫുൾ ഡാമേജും കാര്യങ്ങളും ഒക്കെയാണ് അതുപോലെതന്നെ എ സി കംപ്ലയിൻ്റ് ആണ് എ സിയിൽ നിന്ന് എ സി ഇട്ടാൽ തന്നെ കുറേ വോയിസും കാര്യങ്ങളൊക്കെ വരികയാണ് ആ അതെ ഈ സീറ്റിൽക്കൂടി ഒക്കെ ആണെങ്കിൽ ഫുൾ എന്താ കഴിച്ച ഫുഡ്ഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ വണ്ടി ഒന്നും അത്ര നല്ല ക്ലീൻ ആയിട്ടൊന്നും അല്ല ഫുൾ വൊമിറ്റ് ചെയ്തതിൻ്റെ കുറേ സംഭവങ്ങളും എല്ലാം ഉണ്ട് അതെ ആ ആ ആ ആ ഡ്രൈവർ ആണെങ്കിൽ അത്ര നല്ല ക്യാരക്ടറും കാര്യങ്ങളൊന്നുമല്ല ആ അതെ ആ ഓക്കേ ആ ആ ആ ആ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ലൊക്കേഷൻ മൂന്നാർ ആണ് ആ അതെ എനിക്ക് ഡ്രൈവറിനെയും വണ്ടിയും ഒന്നു ചേയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ചേയ്ഞ്ച് ചെയ്യാൻ തരുമോയെന്ന് ചോദിക്കാൻ വേണ്ടി ആയിരുന്നു അതെ അതെ ഇന്നലെ ഉച്ചയോടെയാണ് ഞങ്ങൾ വന്നത് ആ വൺ ഡേ ആയിട്ടുള്ളു ആ ഓക്കേ